ആ ഹലോ

ആ നമ്മളിവിടെ നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്ക് മാക്സിമം നമുക്കൊരു ഒരു മുപ്പത്തി അഞ്ച് വരെയൊക്കെ നമുക്ക് കൊടുക്കാം ഇതിന് മുന്നേ ഇവിടെ വച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് വെക്കുന്നതാണല്ലേ ആ നമ്മളൊരു മുപ്പത്തഞ്ച് വരെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം വേറൊന്നുമില്ല ഇപ്പം നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാർഷിക ആവശ്യമാണോ എന്തിൻ്റെ ആവശ്യമാണോ അതെയല്ലേ ഓക്കെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയൊരു ഇൻ്ററസ്റ്റിന് കിട്ടുമായിരുന്നു അപ്പം സ്ഥലത്തിൻ്റെ ആധാരം കൂടി ഇതാക്കിയിട്ടാണ് എടുക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ നികുതി ചീട്ടും കൂടി നമുക്കൊന്ന് നികുതി ചീട്ടും ഒരു നികുതി ചീട്ടിൻ്റെ ഒരു കോപ്പി തന്നാൽ മതിയേ അങ്ങനെ തരികയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഇൻ്ററസ്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആ നമുക്കൊരു അതാണെങ്കിൽ നമുക്കൊരു സാധാരണ ഇതിന് നമുക്കൊരു ഒമ്പത് ശതമാനത്തോളം വരുന്നുണ്ട് ആ ഇയർ ആണ് വരിക ഒരു വർഷത്തിലേക്കാണ് ഒമ്പത് ശതമാനം വരുന്നത് അതല്ലാത്ത കണ്ടീഷനാണെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ നമുക്കൊരു നാലര നാലിനുള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതെ അതെ ഒരു ചെറിയൊരു പ്രോസസ്സിംഗ് ചാർജ് വരും അതൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപേൻ്റെ അടുത്തൊരു പ്രോസസ്സിംഗ് ചാർജ് വരും ഏഹ് എന്താണ് നികുതി ചീട്ട് നികുതി ചീട്ട് നികുതി ചീട്ടും വേണം പിന്നെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഐ ഡി കാർഡിൻ്റെ എന്തെങ്കിലും ഒരു കോപ്പിയും വേണം ആ ഇത്രയും ആയിട്ട് വന്നാൽമതി ഓക്കെ ആ പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടും വളരെ പെട്ടെന്നുതന്നെ കിട്ടും അപ്പം വരേണ്ടത് വന്നിട്ടിപ്പം ഒരു ഒരു ഒരു മണിക്കൂറിൻ്റെ സമയമേ വേണ്ടി വരൂ ആ ആ എപ്പം എപ്പോഴത്തേക്കാണ് നമുക്ക് പെട്ടെന്ന് തിരക്ക് തിരക്കാണോ കിട്ടേണ്ട അത്യാവശ്യമാണോ ആ ആ ആ ആ അതെ അതു ശരിയാണ് ആ ആ അതിങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് സാധാരണ ഇതിനാണെങ്കിൽ നമുക്ക് ഒരൊമ്പത് ശതമാനം വരെയൊക്കെ വരും നിങ്ങൾ ഇങ്ങനെ ഇത് ഇതുമായിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു നാലിൻ്റെ നാലില് ഒരു നാലരയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓ ഓക്കെ ശരി ഓക്കെ

എന്നാ മതി മതി മതി അതുമതി അതുമതി ആയിക്കോട്ടെ ഓ ശരി